അങ്ങനെ ചോദീകുവാണെങ്കിൽ അച്ചാറിൻ്റെ അച്ചാറിടാൻ എങ്ങനെയാണ് നമ്മുടെ നെല്ലിയ്ക്കാ അച്ചാർ നാരങ്ങാ അച്ചാർ കടുമാങ്ങാ അച്ചാറിടുന്നത് ഒക്കെ അമ്മക്കെന്റമ്മയെ അമ്മേ എൻ്റെ അമ്മയ്ക്ക് അമ്മേൻ്റെ അമ്മ പറഞ്ഞ് കൊടുത്തും അമ്മേൻ്റെ അമ്മയ്ക്ക് അമ്മേൻ്റെ അമ്മ പറഞ്ഞ് അതായത് അതായത് അവർടെ അമ്മമാരിനിന്ന് കൈ കൈമാറി വന്നതാണ് ഈ അച്ചാറിടുന്നത് അച്ചാറ് വീട്ടില് നമ്മള് സെയിലെയ്യുന്നുണ്ട് നമുക്ക് അച്ചാറ് മാത്രമായിട്ട് നമ്മള് കടേലൊക്കെ പിന്നല്ലങ്കില് പിന്നെ ഹോംമെയിഡ് അച്ചാറായിട്ട് വീട്ടില് ആൾക്കാര് വന്ന് വാങ്ങിയിട്ടും പോകുന്നുണ്ട് അപ്പം ആ ഒരു റെസിപ്പി ഞങ്ങൾക്ക് ഞങ്ങടെ ഗ്രാൻറ്പാരൻസിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ എനിക്ക് ആ ഞാൻ അത്ര അമ്മായിട്ന്നെയോ അമ്മമ്മയിടുന്നെയൊ അത്രയൊന്നും ഞാനിടില്ലെങ്കിലും എന്നാലും നല്ല രീതിയിൽ ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ട് ടേസ്റ്റ്ണ്ട് പക്ഷേ അവര് നമുക്കെപ്പൊഴും ബസ്റ്റ് ആണല്ലോ അവര് നല്ല ബെസ്റ്റായിട്ടാണ് ഇടുന്നത് പിന്നെ പിടിയും കോഴീം വീട്ടിൽ നിന്ന് കാർണോമാരെ കയ്യിന്ന് കിട്ടിയ റെസിപ്പിയാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനെങ്കിലും അത് ഉണ്ടാക്കുന്നത് വർത്തരച്ച് കോഴിക്കറിയും പിടിയും ഉണ്ടാക്കുന്നത് ഇപ്പോൾ ആരും ഉണ്ടാക്കാൻ നിക്കില്ല ഭയങ്കര മെനെക്കെട്ട പണിയാണ് പക്ഷേ എനിക്കത് അമ്മേൻ്റെ കയ്യിന്നും അമ്മെമ്മേൻ്റെ കയ്യിന്നും കൈമാറി കൈ കിട്ടിയതാണത്